മലയാള ഭാഷ ഞങ്ങൾക്ക് ഇഷ്ട്ടമുള്ള ഒരു ഭാഷയാണ് മാലയാളം

ഞങ്ങടെ മാതൃഭാഷയാണ് മാലയാളം ഇന്ത്യയിലെ എല്ലാ ഭാഷകളുമായിട്ടും മലയാളത്തിന് ഒരഭേദ്യമായ ബന്ധമുണ്ട്

തമിഴിലാണെങ്കിലും തുളുവിലാണ് തുളു ഭാഷയിലാണെങ്കിലും മലയാളം ആയിട്ട്

ചേർത്ത് പല വാക്കുകളും സംസാരിക്കുന്ന അമ്മ എന്നുള്ള പദം എല്ലാ ഭാഷകളിലും ഉപയോഗിക്കുന്നുണ്ട് അമ്മ അതേ അതേ പോലെ ഹിന്ദിയിലും മലയാളവുമായിട്ടുള്ള വാക്കുകൾ ഉണ്ട് കലം അത് പോലെ കിതാബ് അതൊക്കെ പറയുമ്പോൾ മലയാളത്തിലും ആ വാക്കുകൾ യൂസ് ചെയ്യാറുണ്ട്

മുന്നെ മലയാളം ഞങ്ങൾ ഞങ്ങളുടെ സംസ്കൃതത്തിൽ നിന്നാണ് മലയാളം ഉണ്ടായിരിക്കുന്നത് വിവിധ ജില്ലകളിൽ പല ഭാഷ്ടിതിയിൽ മലയാള ഭാഷ സംസാരിക്കുന്നുണ്ടെങ്കിലും പൊതുവേ മലയാളികൾ മലയാള ഭാഷയാണ് എല്ലാവരും തന്നെ സംസാരിക്കുന്നത് അതെല്ലാവർക്കും പരസ്പരം മനസിലാകുന്നുണ്ട് ഇംഗ്ലീഷിനും മലയാളവുമായിട്ട് അഭേദ്യമായ ബന്ധമുണ്ട്